സോഷ്യൽ മീഡിയ കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത് വർഷങ്ങളായിട്ട് ബൈബിൾ വായിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് പിന്നെ എല്ലാ ദിവസവും പുലർച്ചെ എനിക്ക് തോന്നുന്ന ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനാറ് മുതലുള്ള അച്ഛൻ്റെ രാവിലത്തെ അഞ്ചരത്തെ അഞ്ചരയ്ക്കുള്ള നിയോഗ പ്രാർത്ഥന വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വാട്സാപ്പ് ധാരാളം ധാരാളം മെമ്പേഴ്സുമായിട്ട് കോൺടാക്ട് ഗ്രൂപ്പുകളും രണ്ട് രണ്ട് മൂന്ന് ഗ്രൂപ്പുകൾ ഞങ്ങൾ തന്നെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതിൽ നാല് അഞ്ച് ഗ്രൂപ്പുകൾ സ്ഥിരമായിട്ട് പോയി നാല് അഞ്ച് ഗ്രൂപ്പുകളിൽ മെസ്സേജ് അയയ്ക്കുകയും വായിക്കുകയും അല്ലെങ്കിൽ ആവശ്യം ഇല്ലാത്ത ഡിലീറ്റ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഏഷ്യാനെറ്റ് ടീവിയും മാതൃഭൂമി ടീവിയിലെയും ന്യൂസുകൾ കാണാൻ ശ്രമിക്കുന്നുണ്ട് പ്രതേകിച്ചു വീട്ടിൽ ഇല്ലാത്ത സമയത്ത് ഇതിനകത്തു കൂടെ ന്യൂസുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ മാർക്കറ്റിൽ ഞാൻ ബിസിനസ്സ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് മാർക്കറ്റിനെ സംബന്ധിച്ചു വിവരങ്ങൾ പേപ്പറിലൊക്കെ കിട്ടാതിരിക്കുന്ന സമയത്ത് ഞാൻ ഇതുവഴി ആയിരുന്നു വിവരങ്ങൾ അറിഞ്ഞിരുന്നത് പിന്നെ ഇതിനകത്ത് ഒരു ചെറുകഥ എഴുതുതുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് ചെറുകഥയൊക്കെ ഇതുവഴി എഴുതിയിട്ടുണ്ട് എൻ്റെ വളരെ അധികം അറിവ് സമ്പാദിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള എസ്പെഷ്യലി പേപ്പറുകളിലൊന്നും വരാത്ത വാർത്തകൾ ധാരാളം ഇതിൽ വരികയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതേകിച്ച് ഓരോ ഓരോ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്തിട്ട് വരുമ്പോൾ എല്ലാം പേപ്പറിൽ പരസ്യം ചെയ്യിപ്പിക്കാതെ വരുമ്പോൾ അതെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അത് വിട്ടിട്ടുണ്ട് ഒരു ദിവസം നമ്മൾ ഇന്നലെ തന്നെ അമേരിക്കനെ സംബന്ധിച്ചിട്ട് പേപ്പറിൽ നിന്ന് അതറിയുന്നതിന് ഒരു ദിവസത്തെ ഗ്യാപ് വേണമായിരുന്നു വീട്ടിൽ ഇരുന്നെങ്കിൽ മാത്രമേ ടീവിയിൽ കൂടെ അറിയാൻ പറ്റുള്ളൂ അത് ഈ സോഷ്യൽ മീഡിയാസ് വഴി അഡിഷ്ണൽ ആയിട്ടും എല്ലാം ഇതിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ വേഗമൊന്ന് വാർത്തകൾ അറിഞ്ഞിരുന്നു പിന്നെ ഇപ്പോഴത്തെ മൂന്ന് സ്ഥലങ്ങളിൽ നടക്കുന്ന ഇലക്ഷനെ സംബന്ധിച്ചിട്ടുള്ള അടിപിടി വഴക്കുകൾ മറ്റ് വഴക്കുകളെല്ലാം നമുക്ക് സമയാസമയം അത് അറിയുന്നുണ്ട് പിന്നെ ഇപ്പം ഒരു പക്ഷെ എനിക്ക് തോന്നുന്ന എനിക്ക് പേപ്പറ് വായിച്ചു കിട്ടുന്ന അറിവിനേക്കാളും കൂടുതൽ ഈ സോഷ്യൽ മീഡിയ വഴി നെറ്റ് വഴിയാണ് എനിക്ക് കിട്ടുന്ന ഗൂഗിള് വഴിയോ മീഡിയ ഫേസ്ബുക്ക് വഴിയോ ഒക്കെയാണ് സാധിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നി തോന്നുന്നത് ധാരാളം ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യാൻ ലെറ്റെർ എഴുത്ത് എഴുതാറുള്ള പരിപാടി അതുപോലെ ടെലഫോൺ വിളിച്ചിട്ട് സംസാരിക്കുന്ന പരിപാടികൾ വളരെ അധികം കുറഞ്ഞു ഇതുവഴിയുള്ള സോഷ്യൽ മീഡിയ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആയത് കൊണ്ട് പിന്നെ ഇത് വന്നതിന് ശേഷമാണ് ഇത് ക്യാൽക്കുലേറ്റർ ആയിട്ട് ഉപയോഗിക്കാം റിസ്റ്റ് വാച്ചായിട്ട് ഉപയോഗിക്കാം പിന്നെ എന്താണ് എന്തെലാം കാര്യങ്ങൾ റേഡിയോയ്ക്ക് പകരമായി പിന്നെ എന്താണ് വടക്ക് നോക്കി യന്ത്രം വരെ ഇതിനകത്തുണ്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നതിനും ഓ ഒത്തിരി സാധനങ്ങൾ ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരു മൊബൈല് കൊണ്ട് ധാരാളം കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് പിന്നെ കമ്മ്യൂണിക്കേഷൻ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ അടുത്ത് കൊണ്ടു വന്നു ദൂരം വളരെ കുറഞ്ഞു ഇപ്പോൾ അമേരിക്കയിലോ കാനഡയിലോ യൂക്കെയിലോ ഒക്കെ ഉള്ള ഫ്രണ്ട്സിനെ അടുത്ത് കൊണ്ട് വന്നു ഇപ്പം വളരെ അടുത്ത അവരെ കണ്ടു കൊണ്ട് സംസാരിക്കാം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കൃഷിയാണ് ഇഷ്ടപ്പെട്ട വിഷയം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ക്യാനഡയിലും അ അമേരിക്കയിലൊക്കെ ഉള്ളവർക്കെല്ലാം നല്ല പോലെ കൃഷിയുണ്ട് വർഷത്തിൽ മൂന്ന് മാസം ആറ് മാസമൊക്കെ ഉള്ളു കൃഷി എങ്കിൽ അവർ അത് മൊബൈല് വഴി തന്നെ കൃഷി അവരുടെ ഫീൽഡിൻ്റെ ഫോട്ടോയു എല്ലാം കാണിച്ചു നന്നായിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട് പിന്നെ ഓരോ ഫങ്ഷനുകൾ ദൂരെ നടക്കുന്ന ഗെയിമുകൾ സ്പോർട്സ് പിന്നെ എന്തെങ്കിലും അല്ലെങ്കിൽ ആഘോഷങ്ങളെല്ലാം നമുക്ക് അതാത് സ്ഥലത്ത് പോകാതെ തന്നെ ഇരുന്ന് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഇരുന്ന് കൊണ്ട് മനസിലാക്കാൻ സാധിക്കുന്നുണ്ട് വേറെ അറിവുകൾ സമ്പാദിക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പേപ്പറുകളേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള നെറ്റ് വഴിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നല്ല ഒരു ടൈം പാസാണ് വിശ്രമിക്കുന്ന സമയത്ത് പറമ്പിൽ ഞാൻ കൃഷിക്കാരൂടെ പറമ്പിലൊക്കെ പോകുമ്പോൾ ഇതും കൊണ്ടാണ് പോകുന്നത് അവിടെ ഇരുന്നിട്ട് ഇത് ഇങ്ങനെ കാണുന്നതിനും കൃഷിയുടെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഗ്രൂപ്പുകളിൽ